പതിനാറ് എട്ട് രണ്ടായിരത്തി അഞ്ച് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് ഏഴ് നാല് രണ്ടായിരത്തി ഏഴ് എട്ട് പത്ത് രണ്ടായിരത്തി ആറ് മൂന്ന് നാല് രണ്ടായിരത്തി ഒൻപത്